സമൂഹത്തിലെ എല്ലാ കുട്ടികളും മൂന്ന് വയസ്സിന് ശേഷം അതായത് നേഴ്സറി സ്കൂൾ മുതൽ എല്ലാവരും സ്കൂളിൽ എത്തുന്നുണ്ടെന്നും ഉറപ്പ് വരുത്തുക അതിനായിട്ട് എല്ലാ മേഖലയിലും ഉള്ളവരും മാതാപിതാക്കളും തങ്ങളുടെ കുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകണം എന്ന ഉദ്ദേശത്തോടു കൂടി അവരെ സ്കൂളിൽ അയക്കാൻ അവർ സന്നദ്ധരാകണം സന്നദ്ധരാകാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ സന്നദ്ധതമാക്കാൻ സാമൂഹിക ക്ഷേമ വിഭാഗങ്ങളിൽ ജോലി ചെയ്യുന്നവരും സമൂഹത്തിലെ സാമൂഹിക പ്രവർത്തനങ്ങളിലും രാഷ്ട്രീയ പ്രവർത്തനങ്ങളിലും സാമൂഹിക സേവനങ്ങളിലും എല്ലാം മുഴുകുന്ന സർവ്വ ആളുകളും അതിനുള്ള പരിശ്രമം കാണിക്കണം അതുപോലെ തന്നെ വിദ്യാഭ്യാസം ഏത് വിദ്യാഭ്യാസ സ്കൂളുകളിൽ ആണേലും വിദ്യാർത്ഥികൾക്ക് വിവേചനം കൂടാതെ അഡ്മിഷൻ കൊടുക്കുവാൻ നമ്മുടെ സമൂഹം തയ്യാറാവണം തയ്യാറാവാത്തവരെ അത് ഗെവൺമെൻറ് തലത്തിൽ അതിനുള്ള നടപടികൾ സ്വീകരിക്കുകയും എല്ലാ കുട്ടികളുടെയും അഡ്മിഷൻ ഉറപ്പു വരുത്തുകയും ചെയ്യണം ചെറിയ തലം മുതൽ ആ തരത്തിൽ വിദ്യാഭ്യാസം ആരംഭിച്ചാൽ അവരുടെ കഴിവുകൾക്ക് അനുസരിച്ചത് ഉയർന്ന രീതിയിൽ ഉള്ള വിദ്യാഭ്യാസം സാഹചര്യങ്ങൾ അവർക്ക് ഒരുക്കി കൊടുക്കുവാൻ സമൂഹവും ഭരിക്കുന്ന സർക്കാരും തയ്യാറാകണം ഇതൊക്കെയാണ് കുട്ടികളിലെ തുല്യ വിദ്യാഭ്യാസം അവസരങ്ങൾ ഉറപ്പാക്കുവാൻ സമൂഹം നടത്തേണ്ട നടപടികൾ